എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അവൻ ഈ നാട്ടിലേകൊക്കെ അവൻ അവർ അമേരിക്കയിൽ സെറ്റിലാണ് പത്തു വർഷത്തോളമായി അവർ അമേരിക്കയിൽ സെറ്റിലായി അവർക്ക് നാട്ടിലൊക്കെ ഇടയ്ക്ക് വരുമ്പോൾ അവന് ഈ പ്രകൃതിയോട് ഇണങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവന് ഭയങ്കര ഇഷ്ട്ടമാണ് നീന്താൻ പോവുകയും മലമുകളിലൊക്കെ പോകുന്നതൊക്കെ അവന് ഭയങ്കര ഇഷ്ട്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിനു വേണ്ടി അവൻ ഒരു സിനിമ ഒരു ചാർലി എന്ന സിനിമ കണ്ടതിൽ പിന്നെ അവനൊരു സ്ഥലം പോകണം എന്ന് ഭയങ്കരമായ ആഗ്രഹം എന്നോട് പറഞ്ഞു അത് ചിലപ്പോൾ ഒന്നും നടക്കാതെ വരുമെന്നോർത്ത് ഞാൻ അതിന് വലിയ ഒരു ഇത് കൊടുത്തില്ല അന്നൊക്കെ ഞാൻ കുഞ്ഞായിരുന്നു അതിനു ശേഷം അവൻ പത്തു വർഷം കഴിഞ്ഞ് അവൻ നാട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ രണ്ടു പേരും കൂടെ പ്ലാൻ ചെയ്ത് മീശപുലി മല എന്ന സ്ഥലത്ത് പോയി അവിടെ ഞങ്ങൾ കുടുംബ സമേതമാണ് പോയത് അവിടെ ചെന്ന് ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് അവിടെ പല പല കുറേ കുന്നുകളും കുറേ നദികളും ഒക്കെയുണ്ട് പിന്നെ താഴ്വരകളും എല്ലാമുള്ള സ്ഥലമായതിനാൽ അവന് അത് വളരെ ഇഷ്ട്ടപ്പെട്ടു ആ സ്ഥലം പിന്നെ അവൻ അവൻ്റേതായ രീതിയിൽ അവൻ ആ ആ സ്ഥലത്തെ കുറിച്ച് ഒരു ഇത് എഴുതിയിട്ടുണ്ട് ആ സിനിമ സിനിമ കണ്ടതിൽ പിന്നെയാണ് അവൻ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങിയത് പിന്നെ അവൻ ഈ ഓരോ മലകളിൽ ഇങ്ങനെ കയറാനും ഒക്കെ മേളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാക്ഷയും ഒക്കെയുണ്ട് അതിൽ അത് അതിനു കൂട്ടായിട്ട് ഞാനും ഉണ്ടായിരുന്നു കൂടെ ഞങ്ങളെല്ലാം ഓരോ മലകയറുമ്പോഴും അതിൻ്റെ മേളിൽ എന്നാണ് എന്നാണ് എന്നിങ്ങനെ അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിൽ ഞങ്ങൾ മലമുകളിൽ കയറുകയും അവിടെ ചെന്നെത്തിയാലുള്ള അവിടത്തെ ആ മഞ്ഞിൻ്റെ എല്ലാം ഒരു തുള്ളിയെല്ലാം വീണ് ആ അതെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ നടന്ന സമയത്താണ് അവിടെ ഒരു നദി കണ്ടത് അവന് അവിടെ നിന്ന് നീന്താൻ ആഗ്രഹം തോന്നി അപ്പം അവൻ അവിടെ ഇറങ്ങി നീന്തി ഞങ്ങൾ കുഞ്ഞിലേ തൊട്ട് നീന്താൻ അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെ നീന്തി നീ അന്ന് വൈകുന്നേരം രാത്രിയോളം ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ഒരു ട്രക്കിങ് കാമ്പിങ്ങിനുവേണ്ടി ഞങ്ങൾ വേറെ സ്ഥലത്ത് ചെന്നു അവിടെ അവിടുത്തെ ഹോട്ടലിൽ നല്ലൊരു അന്തരീക്ഷമായിരുന്നു നല്ലൊരു രാത്രിയിലൊക്കെ നല്ല ഡിന്നർ രാത്രിയിലെ ഭക്ഷണത്തിനൊക്കെ നല്ല സൗകര്യമുള്ള സ്ഥലമായിരുന്നു അവിടെ ചെന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി രാവിലെ പിന്നെ ഞങ്ങൾ മൂന്നാറിലെ തേയിലത്തോട്ടം എല്ലാം കാണാൻ ഇറങ്ങി തേയിലത്തോട്ടം തേയിലത്തോട്ടം എന്നൊക്കെ പറയുമ്പോൾ ആ അമേരിക്കയിൽ നിന്ന് വന്ന അവന് ഒരു വലിയ ഒരു അതിശയമായിരുന്നു ഒരു പച്ചപ്പൊക്കെ നിറഞ്ഞ് ഇങ്ങനെ മലമുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ പച്ചപ്പൊക്കെ നിറഞ്ഞ സ്ഥലമായതിനാൽ അവനു ഭയങ്കരമായൊരു അത്ഭുതമായിരുന്നു ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ എന്നുള്ള ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് അപ്പോഴാണ് ഞാൻ മൂന്നാർ കൊണ്ട് കാണിച്ചത് അവിടത്തെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു ആ അവൻ ഭയങ്കരമായ അവൻ കുളിക്കാനും അവിടെ നനയാനുമൊക്കെ ഭയങ്കരമായ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞങ്ങൾ മൂന്നാർ നിന്ന് തന്നെ സാധിപ്പിച്ചു